എനിക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞുടുപ്പുകൾ തയ്ക്കാനാണ് പെൺകുട്ടികളുടെ കുഞ്ഞുടുപ്പുകൾ എത്ര മനോഹരമായി തയ്ച്ചാലും അതിൽ എന്തെല്ലാം മോടിപിടിപ്പിച്ചാലും അധികമാകില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുട്ടികൾക്കുള്ള ഉടുപ്പ് തയ്ക്കുമ്പോൾ അതിൽ എന്തെല്ലാം ചിത്രപ്പണികൾ ചെയ്യാമൊ അതെല്ലാം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്കാവശ്യമുള്ള നൈറ്റികൾ നൈറ്റി തയ്ക്കുമ്പോൾ നൈറ്റിയുടെ ഫാഷനുകൾ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് നമുക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങൾ ഇങ്ങനെ നമുക്കാവശ്യമായ ഡ്രസ്സുകൾ തയ്ച്ചും അത് ചിത്രപ്പണികൾ ചെയ്തും സമയം കളയുവാൻ ചിലവാക്കുവാനും നമ്മുടെ വിനോദങ്ങളായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനും ശ്രദ്ധിക്കാറുണ്ട് നല്ല കളറും നല്ല ഭംഗിയുമുള്ള തുണികൾ എടുക്കുവാനും അവയിൽ ഏതെല്ലാം രീതിയിൽ കൂടുതൽ ഭംഗിയാക്കാമെന്നു ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഫാഷനിൽ തയ്ച്ചു കൊടുക്കുവാനും എനിക്കൊത്തിരി സന്തോഷമാണ് മറ്റുള്ളവരുടെ മനസ്സിനിഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ അവിടെ ആ സന്തോഷം നമുക്കൊത്തിരി ആത്മവിശ്വാസം തരും അതുവഴി എത്ര സമയം നമ്മൾ ചിലവാക്കിയാലും അതൊരു അധികമാകില്ല എന്ന് തോന്നാറുണ്ട് തയ്ച്ചിട്ട് മിച്ചം വരുന്ന ആ വെട്ടുതുണികൾ പോലും ഉപയോഗിച്ചുകൊണ്ട് നല്ല കുഷ്യനുകളും പില്ലോ കവറുകളുമൊക്കെ ഉണ്ടാക്കുവാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് തുണിയുടെ തുണികൊണ്ടുള്ള പൂക്കൾ അത് എന്തു രസമാണ് കാണാൻ അതുപോലെതന്നെ ഓണം വരുമ്പോൾ വെട്ടു തുണികളിട്ടുകൊണ്ടുള്ള അത്തപ്പൂക്കളിടാനും അതിൽ കണ്ണിന് ആനന്ദകരമായ രീതിയിൽ ചെയ്യാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവയെല്ലാം ചെയ്യുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമാണ് അത്രയുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മപ്രവർത്തികളും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രയയാലും മറ്റുള്ളവർക്കുവേണ്ടി ചെയ്തുകൊടുക്കുമ്പോൾ അവരുടെ സന്തോഷമാണ് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുള്ളത് ഓരോ പുതിയ ഫാഷനുകൾ കാണുമ്പോഴും അത് എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹം വരികയും ഞാനങ്ങനെ ചെയ്യുകയും ചെയ്യാറുണ്ട് കൈത്തറി തുന്നലുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്തുവരെ ചെയ്താലും ഒരു മടുപ്പില്ലാത്ത ഒരു പണിയാണ് തുന്നുകയെന്നത് മിഷിനുകൾ വെച്ചുള്ള തയ്യലും എനിക്കൊത്തിരി ഇഷ്ടമാണ് ഞാനതും ചെയ്യാറുണ്ട്